മേ ഐ കം ഇൻ മാഡം ഞാനിവിടെ എൻ്റെ മകനെ ചേർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്കൊരു അഡ്മിഷൻ വേണം എൽ കെ ജിക്കാണ് മകൻ്റെ പേര് രാഹുൽ അതെ ഞാൻ കല്ലേപ്പുള്ളി കല്ലേപ്പുള്ളി ആ ഇവിടുന്നൊരു മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ആ അവൻ അവൻ ചെറുതായിട്ട് പോയിട്ടേ ഉള്ളൂ ഒര് ഒര് മൂന്നു നാല് മാസമേ പോയിട്ടുള്ളൂ അധികം പോയിട്ടില്ല ആ ഞങ്ങൾക്ക് സ്കൂൾ ബസ്സ് വേണം എന്നുണ്ട് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തു തരുമോ

പിന്നിവിടെ അഡ്മിഷൻ ഫീസ് അങ്ങനെയൊക്കെ അപ്പോൾ ഫുൾ ഫീസ് ഒരു അക്കാഡമിക്ക് ഇയറിന് എങ്ങനെയാണ് വരിക പെർ കിഡ്

ഓക്കെ അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾ ഇവിടെ നിന്നൊക്കെ തരാറുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണോ ഓക്കെ

ഇവിടെ നിന്ന് കോമ്പറ്റിഷനൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ പ്ലസ്ടു വരെയുണ്ടല്ലേ ടെൻത്ത് വരെയാണോ പ്ലസ്ടു വരെയാണോ പ്ലസ്ടു വരെയുണ്ടല്ലേ ശരി പിന്നെ ക്ലാസ്സ് ടൈമിംഗ് എങ്ങനെയാണ് ആ എൽ കെ ജി കിൻഡർ ഗാർഡനും അങ്ങനത്തന്നെ ആണല്ലേ ഓക്കെ അതേ പിന്നെ ലഞ്ച് ബോക്സിന് റെസ്ട്രിക്ഷൻ എന്തെങ്കിലുമുണ്ടോ പിന്നെ യൂണിഫോം ഓക്കെ മാം യൂണിഫോമിൻ്റെ കാര്യം ശരി ഞാനിനി മകനേയും കൊണ്ട് ഇൻറർവ്യൂവിന് വരാം കേട്ടോ താങ്ക് യൂ മാം